വീഡിയോ ദൃശ്യങ്ങളും വീഡിയോ കണ്ടെൻ്റുകളും നിർമ്മാണം കണ്ടെൻ്റുകളുടെ നിർമ്മാണം ഗെയിമിംഗ് വ്യവസായത്തെ വളരെയധികം നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യുന്നണ്ട് സ്വാധീനിച്ചിട്ടുണ്ട് അപ്പം ഇന്ന് നമ്മുടെ എന്താണ് വീഡിയോ വീഡിയോസും ദൃശ്യങ്ങളും വീഡിയോ ദൃശ്യങ്ങളും വീഡിയോ ഗെയിമുകളും അവർക്ക് ചെയ്യുന്നത് വഴി പിള്ളേർ എന്തു ചെയ്യുന്നുണ്ട് അവർ വീട്ടിനകത്ത് തന്നെ എന്ത് ചെയ്യുന്നുണ്ട് അടച്ചു ഇരിക്കണം അപ്പം അവർക്ക് അതിൻ്റെ മൊബൈലോ ഒരു കമ്പ്യൂട്ടറ ഉണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യും എവിടെ നിന്ന് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും ഒരു ലാപ്ടോപ്പുണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും എന്ത് ചെയ്യാം അവർക്ക് ദൃശ്യങ്ങൾ കാണാനും പിന്നെ എന്താണ് വീഡിയോ വീഡിയോ വീഡിയോ നിർമ്മാണവും വഡിയോ കാണാനൊക്കെ അവർക്ക് എന്തും പറ്റുന്നുണ്ട് അപ്പം ഇത് വഴി ജനം ഇവർക്ക് മറ്റുള്ളവരുയിട്ടുള്ള ഒരു കോൺടാക്റ്റ് എന്ത് ചെയ്യും നശിച്ചു പോവുകയാണ് അപ്പം മറ്റുള്ളവരുമായിട്ട് എന്ത് ഇല്ല ഒരു ബന്ധം അവർക്ക് പുലർത്താൻ അവർക്ക് സാധിക്കുന്നില്ല അപ്പം അവർ സ്വന്തമായിട്ട് വീട്ടിൽ ഇരിക്കണം പണ്ട് കാലങ്ങളിലാണെങ്കിൽ പിള്ളേരെ എന്ത് ചെയ്യും ഈ മൊബൈലിൻ്റെ ഉപയോഗം കമ്പ്യൂട്ടറിൻ്റെ ഉപയോഗമൊക്കെ വളരെയധികം കുറവായതുകൊണ്ട് ഈ സമയത്ത് ഇവരെ എന്ത് ചെയ്യും മറ്റുള്ളവരായിട്ട് നല്ല രീതിയിൽ കളിക്കുകയും അവരുമായിട്ട് എന്ത് ചെയ്യും കൂടുതൽ സമയം എന്ത് ചെയ്യും ചിലവഴിക്കുകയും മറ്റുള്ളവരെ സഹായിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കയൊക്കെ ചെയ്യും പക്ഷെ ഇന്നാണെങ്കിൽ പിള്ളേർ എന്ത് ചെയ്യുന്നുണ്ട് അവർ അതിൽ നിന്നെല്ലാം വിട്ടുമാറി സ്വന്തം കാര്യം മാത്രം നോക്കി എന്ത് ചെയ്യുന്നു വീട്ടിലെ കാര്യമോ വീട്ടിലെ വീട്ടിൽ എന്തു ചെയ്യും അവ വീടുമായിട്ടോ വീട്ടിലില് അച്ഛൻ അമ്മയായിട്ടോ അല്ലെങ്കിൽ സഹപ്രവർത്ത്കര് തമ്മിലോ ഒരു ബന്ധവും തന്നെ ഇല്ല അവരെ എന്തു ചെയ്യുകയാണ് ഫുള്ളായിട്ട് ഈ പറഞ്ഞ വീഡിയോസിൻ്റെയും കമ്പ്യൂട്ടറിൻ്റെയും ഗെയിമുകളുടെ മുമ്പിലായിട്ട് അവരെ എന്ത് ചെയ്യുന്നു ചിലവഴിക്കുന്നു ഇതുവഴി അവർക്ക് എന്ത് ചെയ്യുന്നില്ല അവർക്ക് സമൂഹത്തിലുള്ള ഇങ്ങനെയായിയിരിക്കണം നമ്മ സമൂഹമായിട്ടുള്ള ബന്ധം തന്നെ എന്തെയ്യുന്നുണ്ട് വിശഛേദിക്കപ്പെടുന്നുണ്ട് അപ്പം അവർക്ക് ഇവർ അത് വഴി എന്തു ചെയ്യുകയാണ് ഇവർ ഈ ഈ ഗെയിമും അപ്പം അവരുടെ ജീവിത രീതി എന്തു ചെയ്യുന്നു കൊണ്ട് ഈ ഗെയിം പരമായിട്ടാണ് അവരുടെ മൈൻഡ് മൊത്തം എന്തായിരിക്കും എപ്പോഴും ഗെയിം കളിക്കണം വീഡിയോ കാണണം പിന്നെ അതിൽ വിഡിയ നിർമ്മിക്കണം ഇങ്ങനെയുള്ള ആ ഒരു ചിന്തയിലോട്ട് അവർ മാറും എപ്പോഴും എന്തു ചെയ്യണം ഫോട്ടോ എടുക്കണമെന്നും അതുപോലെ സ്റ്റേറ്റസ് ഉണ്ടാക്കണമന്നെന്നും അതൊക്കെ എന്തു ചെയ്യുകയാണ് മറ്റുള്ളവർ അറിയിക്കണമെന്നും ഇങ്ങനെയുള്ള ചിന്തയിട്ട് അവർ മാറീ അപ്പം ഇവർക്ക് എന്ത് ചെയ്യും ജനങ്ങളായിട്ടുള്ള എല്ലാ ബന്ധവും ഇവർ എന്തു ചെയ്യുകയാണ് കശിക്ക യാണ് ചെയ്യുന്നത് അവർക്ക് എന്തെയ്യൻ പറ്റില്ല സമൂഹമായിട്ട് ഒരു ബന്ധവുമെല്ലാം അവർ മറ്റുള്ളവരെ എന്ത് ചെയ്യുന്നില്ല പരിഗണിക്കുന്നില്ല അവർ എന്താണ് എൻ്റെ മൊബൈൽ മൊബൈ ഇല്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥയായിട്ട് അവർ മാറിക്കൊണ്ടിരിക്കുന്നു